ഇവിടെ പ്രദേശത്തെ കാലാവസ്ഥ കൂടുതൽ മഴക്കാലമാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലം മഴ നന്നായി പെയ്തു കഴിയുമ്പോൾ അതായത് ജൂൺ മാസം മുതൽ ഉണ്ടാകുന്ന മഴയിൽ കുട്ടനാട്ടിൽ മിക്കവാറും പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും വഴികളും തോട് വഴികളെല്ലാം മുങ്ങി തോടും ആറുമെല്ലാം നിറഞ്ഞൊഴുകി മറ്റ് മനുഷ്യൻ യാത്രചെയ്യാൻ ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഒരുമാതിരി സാമ്പത്തികം ഉള്ളവരും അല്ലാത്തവരും എല്ലാം ബന്ധുവീടുകളിലേക്കും കരക്കോട്ടും ഇറങ്ങിപോകും അതു വെള്ളം ഇറങ്ങിക്കഴിഞ്ഞേ അവർ മിക്കവാറും തിരികെയെത്തുവോളു അതുവരെ വീടും മറ്റു കന്നുകാലികളുമെല്ലാം ആരെങ്കിലും ഒരു ആൾ മാത്രം കൂട്ടി താമസിച്ചിട്ട് മറ്റുള്ളോരെല്ലാം മറ്റു ബന്ധുവീടുകളിലും അല്ലെങ്കിൽ വാടകയ്ക് വീടെടുത്ത് താമസിച്ചും അങ്ങോട്ട് മാറുക പതിവാണ് അങ്ങനെ ഈ വേനൽകാലം മര മഴക്കാലത്തെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ ഇത് എല്ലാവർഷവും കഴിഞ്ഞ കുറച്ച് കുറച്ച് നാളുകളായി ഇത് കൂടുതലായി കണ്ടുവരുന്നു വെള്ളപ്പൊക്കം അത് അതിനെ പ്രതിരോധിക്കുവാനായിട്ട് സർക്കാറിനും ജനങ്ങൾക്കും സാധിക്കുന്നില്ല